കേരളീയരുടെ ഒരു ഉൽസവം ആണ് നമ്മുടെ വള്ളംകളി അത് ആഘോഷമായൊരു വള്ളംകളിയാണ് ചുണ്ടൻ വള്ളവും ജെവഹർ തായങ്കരിയും കരുവാറ്റ അങ്ങനെ ഇഷ്ടംപോലെ വള്ളങ്ങളാണ് നമ്മുടെ പല രീതിയിൽ യൂണിഫോമണിഞ്ഞ ആൾക്കാരുടെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയുമൊക്കെ ഒരോരോ യൂണിഫോമില് തുഴച്ചിലുകാരും ആർപ്പോ ഹീർപ്പോ ഈ ജെയ് വിളികളൂടിയുള്ള വള്ളംകളിയും അവരുടെ ആ വള്ളംകളി കാണാനായിട്ട് എന്തുമാത്രം ജനങ്ങള് പുറത്തൂ രാജ്യങ്ങളില്നിന്നുള്ള ജനങ്ങൾ വരെ വന്ന് തിമിർത്ത് അതിൽ പങ്കിടുകയും എല്ലാവർക്കും ആ ഒരു ദിവസം ഭയങ്കര സന്തോഷമായിട്ട് അടിച്ച്പൊളിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണത് എല്ലാവർക്കും അതാരു ജയിക്കും ആരു ജയിക്കും എന്നും പറഞ്ഞവിടെ നിന്നങ്ങ് അവരുടെ ഒപ്പം നമ്മളും അതിനോട് കൂടി ആർപ്പോ വിളിച്ച് ജെയ് ജെയ് വിളിച്ച് ആ വള്ളത്തെ ജയിപ്പിക്കാനുള്ള ആ ഒരു പ്രവണത കാണിക്കുന്ന കുട്ടനാടിൻ്റെ ആ മഹാത്മ്യം പിടിച്ച് നിർത്തുന്ന നെഹ്റു ട്രോഫിയും മൂലം വള്ളംകളിയും എല്ലാം അത് നല്ല ആഘോഷത്തിമിർപ്പില് ആറാടി ആ വള്ളത്തെ ജയിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു ഇത് കാണണം അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു ജയമാണ് അത് കണ്ടറിഞ്ഞ് മാത്രമേ അത് അതാഘോഷിക്കാൻ പറ്റുവുള്ളു അതാണ് കുട്ടനാടിന്റെ ഏറ്റവും വലിയൊരു മാഹാത്മ്യമാണത് അതിനോട് നമക്കെല്ലാവർക്കും അത് കാണാത്തവര് ഇനിയെങ്കിലും കാണാനായിട്ട് ഉത്സാഹിക്കുക അത് നല്ല ഒരു എല്ലാവർക്കും ആനന്ദം പകരുന്ന ഒരു സന്ദർഭമാണ് അത് അതിന് ആ അത് കാണാനായിട്ട് എല്ലാരും ശ്രമിക്കുക ആ മഹോത്സവത്തില് പുറത്തൂനിന്നുള്ള ആൾക്കാര് വരെ വന്ന് ഇത് കാണുന്നു അവരും ആ കൂട്ടത്തില് ആ വെള്ളത്തിലേക്കെടുത്തു ചാടുന്നു ഇതൊക്കെ കാണാനും മാത്രം നല്ല സന്തോഷമായിട്ടുള്ള ആ കാര്യം എല്ലാവരും കാണുക അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇത്